ഇന്നത്തെ കാലത്ത് നമ്മളുടെ ഇന്ത്യയിൽ ഒരു വിധം വിദ്യാർത്ഥിനികൾ മുതൽ മുതിരന്നവർ വരെ യൂറ്റ്യൂബ് ചാനൽ തുടങ്ങുകയും യൂറ്റ്യൂബറാവുകയും അതിൽനിന്ന് അവർക്ക് കുറേ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കാനും പുതിയ പുതിയ നല്ല നല്ല വഴി തുറക്കാനും അവർക്ക് സാധിക്കുന്നുണ്ട് ഇന്നത്തെകാലത്ത് യുറ്റ്യൂബ് തുടങ്ങി ഇന്ന് ജീവിതം സക്സസ്ഫുള്ളായവരുണ്ട് ചിലവർ അത് ഫെയിലായി പോയവരും ഉണ്ട് അതിനെക്കൊണ്ട് കുറേ ആൾക്കാർ രക്ഷപ്പെട്ട് ഇന്നത്തെ സമൂഹത്തിൽ എത്രയോ പൈസ ഇല്ലാതെ ജീവി കഷ്ടപ്പെട്ട് വളർന്നവർ ഈ ഒരു വെറും ഒരു സ്മാർട്ട് ഫോൺ കൊണ്ട് ജീവിതം മുന്നോട്ട് പോയവരുണ്ട് കുറേപേർ ഇന്ന് അത്കണ്ടിട്ട് കുറേ ആൾക്ക് മോട്ടി മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട് ഇതിലൂടെ കുറെകുറേ കാര്യങ്ങൾ എല്ലാവർക്കും പഴയ ജീവിത രീതികളും ജീവിത ശൈലികളും ജീവി നമ്മുടെ നാടുകളിലുള്ള ഭാഷകളുമാണ് ഇന്നെല്ലാവർക്കും അറ് അതൊരു അറിവ് കൂടിയാണ് മോട്ടിവേഷൻ മോട്ടിവേഷനും പ്രൊമോഷൻ വീഡിയോസും അങ്ങനെയുള്ള പലതും ഇന്നത്തെ സമൂഹത്തിൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇന്നത്തെ കാലത്ത് ചെറു ചെറുപ്പക്കാർ ചെറുപ്പക്കാർ മുതലേ എല്ലാവരും എല്ലാവരും നല്ല പൈസ സമ്പാദിക്കുക എല്ലാവരും അവരവരുടെ കാര്യം നോക്കി ജീവിക്കുക പുതിയ വീട് വെയ്ക്കുക പൈസേനെ പൈസ സമ്പാദിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ പണ്ടത്തെ പോലെയൊന്നുമല്ല ഇന്നത്തെ ആൾക്കാർ അങ്ങനെതന്നെ ഇത്രയേ പറയാനുള്ളൂ